ഹലോ ഹലോ അതേ ഹ്യൂണ്ടായിൻ്റെ കമ്പനിയാണ് ഓക്കേ സാർ എങ്ങനെത്തെ കാറാണ് സാറുദ്ദേശിക്കുന്നത് ഫാമിലിക്ക് പോകാനാണോ അതോ പെർ ഹൈറ്റ് കൂടിയ ടൈപ്പ് അങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് എന്താ യൂസ് ചെയ്യുന്നത് കാറാണ് ചേട്ടാ ഫൈവ് സീറ്റ് കാറ് ഉണ്ട് ഐ ട്വൻ്റി ഉണ്ട് ഐ ടെന്ന് ഉണ്ട് വേറെ ഫുള്ള് ഓപ്ഷന് ഒക്കെയുണ്ട് ഐ ട്വൻ്റി ട്വന്റി ഫോർ മോഡല് ഉണ്ട് പിന്നെ ട്വൻ്റി ത്രീ ഉണ്ട് പിന്നെ ഐ ടെണ്ണ് ഉണ്ട് പവർ വിൻഡോ അല്ലാത്ത വിൻഡോയുണ്ട് ആ പവർ വിൻഡോ ഉള്ളതും ഉണ്ട് അതിന് പതിനാലാണ് വരുന്നത് ഫുള്ള് ഓപ്ഷനേ ഫുള്ള് ഓപ്ഷനല്ലാത്തത് പത്ത് വരും സാറ് എങ്ങനെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഇ എം ഐ ഇട്ട് എടുക്കാനാണോ ആ ആദ്യം ഇത് എത്രയാണ് തരാനുദ്ദേശിക്കുന്നത് സാറ് സാറ് നമുക്ക് വേറൊരു കാറ് ഉണ്ട് ക്രെറ്റാ എന്ന് പറഞ്ഞൊരു കാറ് ഉണ്ട് അത് ഫൈവ് സീറ്റാണ് പക്ഷെ ആറ് പേർക്കൊക്കെ പോവാം പിന്നെ ഹൈറ്റ് കൂടിയതാണ് അടി തട്ടുന്നില്ല പിന്നെ ബോഡിക്കാണെങ്കിൽ കുറച്ച് വലിപ്പം ഉണ്ട് പിന്നെ അതുപോലെ സൺപ്രൂഫ് ഒക്കെ വരുന്ന സാധനം ആണ് ആ ചെറുങ്ങനെയുള്ള വഴിയിൽക്കൂടെ ഒക്കെ പോവും ഫോർ ഇൻടു ഫോറ് അല്ലാത്തതിൻ്റെയൊക്കെയുണ്ടാവും ആ അതൊക്കെ പോവും പിന്നെ വലിയ കട്ടിങ്ങ് അല്ലല്ലോ അതൊന്നും കുഴപ്പം ഇല്ല സാറത് ഹൈറ്റ് ഉള്ള വണ്ടിയായത് കൊണ്ട് അടി തട്ടില്ല പിന്നെ ഐ ട്വൻ്റി ഐ ടെണ്ണ് എന്നൊക്കെ വെച്ചാൽ പെട്ടന്ന് അടി തട്ടും ആ പിന്നെ അങ്ങനെത്തേത് ഒക്കെ ഉണ്ട് പിന്നെ ഇത് മാനുവല് ഉണ്ട് ഓട്ടോമാറ്റിക്ക് ഉണ്ട് പിന്നെ പെട്രോള് ഡീസല് ഉണ്ട് ആ ഡീസലിൻ്റെ മാനുവലിന് വരുന്നത് വെച്ചാൽ സ്റ്റാർട്ട് വരുന്നത് ഇരുപത്തഞ്ചാണ് ആ ഫുള്ള് ഓപ്ഷന് ഇരുപത്തെട്ട് വരും അതേപോലെ ഡീസലിനാണെ മാനുവല് അതേപോലെ ഓട്ടോമാറ്റിക്ക്ന് ഇരുപത്തെട്ട് വരും സ്റ്റാട്ടിങ് ഫുള്ള് ഓപ്ഷന് മുപ്പത്തിരണ്ട് വരും ഓ ഇ എം ഐ യൊക്കെ ഉണ്ടാവും ഒരു ആണെങ്കിലൊരു സാറ് ഡൗൺ പേയ്മെൻ്റ് ഒരു നാൽപ്പത് അടക്കേണ്ടി വരും സാറിന് പിന്നെ ഏറ്റവും ഇതൊക്കെ ഉള്ളത് കാരണം ആ എങ്കിൽ സാറ് മാനുവല് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുംകൂടെ ബെറ്ററ് പിന്നെ ഓട്ടോമാറ്റിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ലച്ച് ഉണ്ടാവില്ല പിന്നെ ലോങ്ങ് ഡ്രൈവിനൊക്കെ കുഴപ്പം ഒന്നും ഉണ്ടാവില്ല ഗിയറ് മാറ്റുന്നത് അങ്ങനെത്തെ ഇഷ്യൂസ് ഉണ്ടാവില്ല ആ പിന്നെ മാനുവലാകുമ്പം സാറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റത്തിലൊന്ന് കുടുങ്ങി കഴിഞ്ഞെന്നാൽ താങ്ങിയെടുക്കാനൊക്കെ പറ്റും നല്ലത് പോലെ ക്ലച്ചിൽ താങ്ങിയെടുക്കാൻ അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ പറ്റും നമുക്കെ വണ്ടിക്ക് പ്രശ്നം ഒന്നും ഇല്ല വണ്ടി എന്ന് വച്ചാൽ ഐ വണ്ടി കളറ് ഉള്ളത് വൈറ്റ് ഗ്രേ ബ്ലാക്ക്

ബ്ലാക്കിൽ സിൽവർ അലോയ് വീല് ഉള്ള മോഡലും ഉണ്ട് ഇല്ലാത്ത മോഡലും ഉണ്ട് അലോയ് വീല് ഉള്ളതല്ലേ വേണ്ടത് ആ പിന്നെ സാറെ അതിന് വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഫുള്ള് ഓപ്ഷൻ വണ്ടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മേറ്റ് മാത്രമാണ് ഇട്ട് തരിക മേറ്റിട്ട് തരും ആ മേറ്റിട്ട് തരും പിന്നെ അഡീഷനലായിട്ട് അതിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നൊക്കെ വച്ച് കഴിഞ്ഞാൽ ഫോഗ്ഗ് ചെയ്യാം പിന്നെ നമുക്ക് പവർ വിൻഡോയിൽ ഈ ചെറിയ ഒരു കൂളിങ്ങ് ഒട്ടിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ക്യമാറേ ഉണ്ട് വണ്ടിക്ക് ടച്ച് സ്ക്രീന് വരും ആ ഷോറൂമീന്ന് ചെയ്തുതരും സാറ് വാങ്ങിയാൽ മാത്രം മതി സാധനം അവിടെ തന്നെയുണ്ടാകും അതിൻ്റെ പേയ്മെൻ്റ് മാത്രമേ ചെയ്യേണ്ടൂ എന്തൊക്കെയാണ് ഹാൻഡിൽ സ്റ്റീയറിങ്ങിൽ ഇത് ഫുള്ളും ചെയ്യാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കൂളിങ്ങ് പിന്നെ സീറ്റ് കവറ് അങ്ങനെ എല്ലാം കൂടിയാണ് എല്ലാം ഒരു സെക്കൻഡ് സാറെ ഒന്ന് നോക്കട്ടെ ഹോൾഡ് ചെയ്യൂ സാറേ അതിന് എല്ലാംകൂടിയൊരു ഇരുപത്തഞ്ച് രൂപ വരും ആ ഇരുപത്തഞ്ച് വരും ഫോഗ് അടക്കം ആണോ സാറെ സാറിൻ്റെ പേരെന്താണ് അപ്പം സാറ് ഇപ്പം ബുക്ക് ചെയ്യണോ അതോ സാറ് എന്താ ചെയ്യേണ്ടത് ആ ഉണ്ടായിരുന്നു നമുക്കിത് തന്നെ നോക്കാം അല്ലേ ക്രിസ്റ്റ ക്രിറ്റ ഏതാ നോക്കേണ്ടത് സാറ് ഇവിടെയിപ്പോൾ ഇവിടെയിപ്പോൾ നമ്മൾ കാണിക്കാൻ വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വച്ചേക്കുന്ന വണ്ടി എന്നുവെച്ചാൽ വൈറ്റ് കളറാണേ ബ്ലാക്ക് കളറ് ബുക്ക് ചെയ്യേണ്ടി വരും സാറ് എവിടെ സ്ഥലം

സ്ഥലം അറിയില്ലേ ഷോറൂമുള്ള സ്ഥലം ഓക്കേ സാർ താങ്ക് യൂ സാർ